ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ എന്താണ് വിളിച്ചത് ആണോ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ആ കാണിച്ചിട്ടില്ലായിരുന്നോ ആ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നോ ആ എന്നിട്ട് കുറവില്ല ആ മഴയോ അല്ലെങ്കിൽ വീട്ടിൽ വേറാർക്കെങ്കിലും പനിയോ ജലദോഷമോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടായിരുന്നോ ആണോ അവർ പുറത്തൂന്നു പുറത്തുപോയിട്ട് വന്നപ്പം വന്നതാണോ

ആ ചിലപ്പോൾ ഇങ്ങനെ വൈറൽ ഫീവറായിരിക്കും തൊണ്ടവേദന ഉണ്ടോ ആ എന്നാൽ തൊണ്ടവേദന ഉണ്ടെങ്കിൽ വൈറൽ ഫീവറായിരിക്കും ഇപ്പം എല്ലാവർക്കും പനിയുണ്ടല്ലോ അപ്പം അത് വൈറൽ ഫീവറായിരിക്കും പിന്നെ നന്നായിട്ട് റെസ്ററ് എടുത്തോളു പിന്നെ വേറെ എവിടെയും പോകുവൊന്നും വേണ്ട പുറത്തൊന്നും പോകണ്ട പുറത്തു പോയാൽ മറ്റുള്ളവർക്കും കൂടെ വരുത്തണ്ട പിന്നെ ആ പിന്നെ എന്തായാലും ഒന്ന് ഒന്നു കാണിച്ചോളു പിന്നെ തൊണ്ടവേദനയൊക്കെ പോണെങ്കിൽ കാണിക്കണം ഇപ്പോൾ വൈറൽ ഫീവറിൻ്റെയൊരു പിന്നെ വേറെത്തന്നെ ഒരു ജനറൽ ഓ പിയുണ്ട് അപ്പം അവിടെ ഒന്നു കാണിച്ചാൽ മതി രാവിലെ പിന്നെ രാവിലെ തന്നെ വന്നാൽ മതി ഒരു ഒരു ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എട്ടുമണിക്ക് മുന്നേ ബുക്ക് ഈ നമ്പറിൽ തന്നെ വിളിച്ചു ബുക്ക് ചെയ്താൽ മതി ഇവിടെ എഴുതിവെക്കാം എന്നാൽ പെട്ടെന്ന് നമുക്ക് കാണിച്ചിട്ട് പോകാം അല്ലെങ്കിൽ പിന്നെ തിരക്കായിപ്പോകും പിന്നെ പത്തുമണിക്ക് മുൻപേ വന്നോളു പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കു കേട്ടോ റെസ്റ്റ് എടുക്കണം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഫ്രൂട്ട്സൊക്കെ കഴിച്ചോ ക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ വീട്ടിൽ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അത് കുടിച്ചോട്ടോ എന്നാൽ കുറച്ചു വേദനയൊക്കെ പോകും അപ്പോൾ വന്നിട്ട് എന്നുവെച്ചാൽ അലർജിൻ്റെ ഒരു ഗുളികയൊക്കെ ഉണ്ടാവും അതൊക്കെ എഴുതിത്തരണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും

ആ ആ ആ പിന്നെ ആവി പിടിച്ചോട്ടോ ആവി പിടിച്ചാൽ കഫം ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടേ പൊയ്ക്കോളും നന്നായിട്ട് ആവി പിടിച്ചാൽ മതി ഇപ്പോൾ ഗു മരുന്ന് കുടിക്കുന്നതിൻ്റെ കൂടെ ആവിയും പിടിക്കേണ്ടിവരും അപ്പോൾ നന്നായിട്ട് ആവിയും പിടിച്ചോ അല്ലെങ്കിൽ പിന്നേ കുറയൂല അല്ലെങ്കിൽ തലവേദനയുണ്ടോ കഫക്കെട്ടുണ്ടാവുലെ ആ ആ ആ എന്നാൽ ഇത് പിന്നെ കൂടുന്നെനു മുന്നേ വന്നു കാണിച്ചോളു എന്നാൽ ഓക്കെ രാവിലെ ബുക്ക് ചെയ്യുമ്പോൾ ഒരെട്ടു മണിക്കു മുന്നേ ബുക്ക് ചെയ്തോ പിന്നെ ഒരു പത്തുമണിയാകുമ്പോഴ്ത്തേക്കു വന്നാൽ മതി ബുക്ക് ചെയ്തതാണെങ്കിൽ പത്തുമണിക്കത്തേക്ക് വന്നാൽ മതി ബുക്ക് ചെയ്യുന്നില്ലെങ്കിൽ പത്തുമണിക്ക് ശേഷം വരണം ബുക്കിംഗ് ചെയ്തവരെ പത്തുമണി വരെയേ നോക്കുന്നുള്ളൂ പിന്നെ അതുകഴിഞ്ഞിട്ടാണ് ബുക്കിംഗ് ഇല്ലാത്തവരെ നോക്കുന്നത് ഓക്കെ